ആ ഹലോ ആ പറഞ്ഞുകൊള്ളൂ ആ ചേട്ടാ പറഞ്ഞുകൊള്ളൂ ഉം ഉം ആ ഉണ്ട് ഓഫര് കുറേ ഐറ്റംസിനുണ്ട് ഇന്ന് അരിക്ക് ട്വെന്റി ഫൈവ് പേര്സെന്റെജ് ഡിസ്ക്കൗണ്ട് ഉണ്ട് മട്ടയരിക്കും എല്ലാത്തിനും തന്നെ ട്വെന്റി ഫൈവ് പേര്സെന്റെജ് ഡിസ്ക്കൗണ്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണയുണ്ട് കേരയുടെ വെളിച്ചെണ്ണയ്ക്ക് ഫിഫ്റ്റി പേര്സെന്റെജ് ഓഫറിലാണ് ഇന്ന് പോകുന്നത് പിന്നെ ഗ്രോസറി ഐറ്റംസ് ടെന് പേര്സെന്റെജില് ആ പഞ്ചസാര ടെന് പേര്സെന്റ് ആ ഇന്ന് ടെന് പേര്സെന്റെജ് ഡിസ്ക്കൗണ്ടിട്ടുണ്ട് സാര് ഒരു കിലോയുടെ എടുക്കുകയാണെങ്കില് ഒരു കിലോയുടെ പാക്കറ്റ് എടുക്കുമ്പോള് ആ പിന്നെ സാറെ ഹോള് സെയിലാണോ അമ്പത് പായ്ക്കറ്റോ അത് ഉം ആ ഓക്കെ ഓക്കെ ഓക്കെ ആ അങ്ങനെ ആ അങ്ങനെയാണെങ്കില് നമുക്ക് കുറച്ചുകൂടി ഡിസ്ക്കൗണ്ട് ചെയ്യാം സാര് അത് കമ്പനിയുടെ ഡിസ്കൗണ്ട് അല്ലാതെ വേറെ നമുക്ക് ചെയ്യാം ഉം വേറെ എന്തൊക്കെയാണ് വേണ്ടത് ആ അരി എല്ലാമുണ്ട് ഏതാണ് സാര് നോക്കുന്നത് ഏതാണ് പ്രിഫര് ചെയ്യുന്നത് ആ വെള്ളയരി ഓക്കെ ഓക്കെ വെള്ള നമുക്ക് നാല് കമ്പനിയുടേത് ഓള്റെഡി ഇപ്പോഴുണ്ട് അത് എല്ലാത്തിനും തന്നെ ഇന്ന് ഓഫറുള്ളതാണ് ഉം ഉം ആ അരി ജയയുടെ ഉണ്ട് ജയയുടേതാണ് എല്ലാവരും യൂഷൊലി വെള്ളയരി പ്രിഫര് ചെയ്യാറ് അങ്ങനെ എന്തോരം വേണ്ടി വരും നിങ്ങള്ക്ക് ആ ഓക്കെ ഓക്കെ ആ അരി അമ്പത് കിലൊ മതിയോ ആ ആ ആ ഓക്കെ ആ അരി അമ്പതിന്റെ ചാക്കുണ്ട് ആ അരി അമ്പതിന്റെ ഉണ്ട് ആ ആ ഓക്കെ ആ ഉം ഓക്കെ ആ ഓക്കെ ആ ആ മല്ലി സോറി എക്സ്ക്യൂസ് മി സാറെ പച്ചമല്ലിയാണോ അതോ മല്ലിപ്പൊടിയാണോ മല്ലി ആ പച്ചമല്ലി ഓക്കെ ഓക്കെ ആ ഓക്കെ ഉം സ്റ്റേഷണറി ഐറ്റംസുണ്ട് ആ ഉണ്ട് നമുക്ക് പാരലലായിട്ട് തന്നെ നമ്മുടെ ഷോപ്പിലുണ്ട് സ്റ്റേഷണറി ഐറ്റംസിന് ഫ്രൂട്ട്സിന് ഓഫറില്ല സാര് ഫ്രൂട്ട്സിന് അങ്ങനെ ഇപ്പം സീസണും കൂടിയല്ലെ അപ്പോള് അതുകൊണ്ട് ഫ്രൂട്ട്സിനത്ര ഓഫറില്ല ഗ്രോസറി ഐറ്റംസിനാണ് നമ്മള് മെയിനായിട്ട് ഓഫറുള്ളത് ഉം ഉം ഓക്കെ എങ്ങനെയാണ് സാറെ ഹോം ഡെലിവറിയാണോ ഏതാണ് മില്ക്ക് ഫ്രൂട്ടില്ല നമുക്ക് മില്ക്ക് ഫ്രൂട്ടില്ല മില്ക്ക് ഫ്രൂട്ടില്ല നമുക്ക് മെയിനായിട്ടുള്ളത് തണ്ണിമത്തനും ഓറഞ്ചും നാരങ്ങ അങ്ങനെ ഇപ്പം സമ്മറായതുകൊണ്ട് അങ്ങനത്തെ ഫ്രൂട്സാണ് അധികമായിട്ടുള്ളത് ആ ആ ഹോം ഡെലിവറിയുണ്ട് എവിടെയാണ് ലൊക്കേഷന് എക്സാറ്റ് ലൊക്കേഷന് ഷെയര് ചെയ്താല് മതി ഞങ്ങളവിടെ ഹോം ഡെലിവറി ചെയ്യും അതിന് എക്സ്ട്രാ പേയ്മെന്റ് ഉണ്ട് പേയ്മെന്റ് നമ്മള് കിലോമീറ്ററിന് അഞ്ച് രൂപ വെച്ചിട്ടാണ് സാര് ഇവിടെനിന്ന് കിലോമീറ്ററിന് അഞ്ച് രൂപ വെച്ചിട്ടാണ് ചാര്ജ് ഉം ഗൂഗിള് പേ ചെയ്യുകയായിരിക്കും സാര് നമുക്ക് കടയില് ഹോം ഡെലിവറിയാകുമ്പോള് കടയിലേത് ആ കടയില് പേയ്മെന്റ് ചെയ്തിട്ടാണ് നമ്മള് കൊടുത്തുവിടുകയുള്ളൂ അല്ലെങ്കില് പിന്നെ അവിടെ വന്നുകഴിയുമ്പോള് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാല് അതുകൊണ്ട് നിങ്ങള്ക്ക് ഓണ്ലൈന് പേയ്മെന്റ് ചെയ്തിട്ട് ഓണ്ലൈന് പേയ്മെന്റ് നമുക്ക് ഫോണ് പേയും ഗൂഗിള് പേയുമൊക്കെയുണ്ട് അതിലേതെങ്കിലും ഓപ്ഷന്സ് റിസീവ് ചെയ്തിട്ട് അത് കഴിയുമ്പോള് നമ്മളത് കൊടുത്തുവിടും ഉം ഓക്കെ ഞാന് മാനേജറിന്റെ നമ്പര് തരാം സാറൊന്ന് കൊണ്ടാക്റ്റ് ചെയ്തുനോക്കൂ യൂഷൊലി നമ്മള് അങ്ങനെ ചെയ്യാറില്ല മാനേജറിന്റെ നമ്പര് തരാം സാര് വിളിച്ചാല് മതി ആ ആ ആ ആയിക്കോട്ടെ ലൊക്കേഷന് ഷെയര് ചെയ്താല് മതി ഓക്കെ ആ ഉം ആ ഓക്കെ ഓക്കെ മതി ആ മതി മതി സാര് ഓക്കെ ചെയ്തുകൊള്ളാം ചെയ്തുകൊള്ളാം ഓക്കെ ഫൈന് ആ ആ എന്നത്തേക്കായിരുന്നു നിങ്ങള്ക്കിത് വേണ്ടത് നിങ്ങള്ക്ക് എപ്പോഴത്തേക്കാണ് ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ രാവിലെ ചെയ്തുകൊള്ളാം ഓക്കെ താങ്ക് യൂ